വൈദ്യുതി ബില്ല് കറക്റ്റായിട്ട് എപ്പോഴും അടക്കുന്നൊരു വ്യക്തിയാണ് ഞാന് അപ്പോൾ എന്റെ മൊബൈലിലെ ഇമെയിലേക്ക് എനിക്ക് ഇപ്പമൊരു മെസ്സേജ് വന്നിരുന്നു എന്റെ വൈദ്യുതി ബില്ല് അടക്കുന്നത് കാലഹരണപ്പെട്ടു എന്നും പറഞ്ഞായിരുന്നു എനിക്ക് മെസ്സേജ് വന്നിരുന്നത് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാന് എന്റെ വൈദ്യുതീടെ ബില്ല് ഞാന് കൃത്യസമയത്ത് തന്നെ അടക്കുകയും ചെയ്തതാണ് അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം എനിക്കതൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് തരണം കാരണം പേയ്മെന്റ് ഞാന് ചെയ്തിരുന്നു അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത ശേഷം എനിക്കൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് തരേണ്ടതാണ് ഓക്കെ താങ്ക് യൂ